ഹലോ സാറേ എന്താണ് കഴിക്കാൻ വേണ്ടേ സാറേ പുട്ടും കടല പഴം അപ്പവും ഗ്രീൻ പീസ് കറി പിന്നെ ബീഫ് കറി ഉണ്ട് പൊറോട്ട ബീഫ് പിന്നെ എത്തക്കയും ഏത്തക്കയും ഉണ്ട് പിന്നെ കോംബോ ഓഫറുണ്ട് സാറേ മൂന്ന് പൊറോട്ട ഒരു പ്ലേറ്റ് ബീഫ് രണ്ട് ഏത്തക്കാപ്പം മ്മ് സാറെ ഇവിടെ എൺപതാണ് സാറ് എവിടുന്നു വരുവാണ് സാർ ഇവിടെ തന്നെ ഉള്ള ആണോ വർക്ക് അല്ലേ ചില കസ്റ്റമറും ചില കസ്റ്റമേഴ്സിന് നമ്മള് പത്തുരൂപ കുറച്ച് കൊടുക്കുന്നതാണ് പിന്നെ പുറത്ത് നിന്ന് വരുന്നവർക്ക് നമ്മുടെ പാക്കേജ് അനുസരിച്ച് നമ്മള് പത്തുരൂപ കുറച്ച് കൊടുക്കുന്നതാണ് സാറേ അപ്പം കോംബോ ഓഫറാണോ

മന്തി ഐറ്റംസോ സാറേ മന്തി ആയി വരുന്നതേ ഉള്ളു ഒരു പത്ത് മിനിറ്റും കൂടെ വെയ്റ്റ് ചെയ്യുമോ സാറേ ഓക്കേ ഓക്കെ ആ മക്ക് കുഴപ്പമില്ലല്ലോ ഓക്കെ ഓക്കെ നമ്മൾ ചൂടുള്ളത് നമ്മുടെ ആയി വരുന്നതേ ഉള്ളു സാറേ അപ്പം സ്റ്റാർട്ടറായിട്ട് എന്തേലും വേണോ സാറേ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറേ

ഓക്കെ ഓക്കെ ഓക്കെ സാറേ ഒരു പത്തു മിനിറ്റ് പത്തുമിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ല പത്തല്ലെങ്കിൽ സാറേ നമ്മളത് എടുക്കാൻ താമസം സാറ് തന്നെ കാണുന്നില്ലേ സാറേ നമ്മള് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ആണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് തന്നെ ആ അതെ അതെ അതെ മ്മ് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ചെറിയ സ്റ്റാർട്ടർ എന്തേലും വേണോ സാറേ സൂപ്പ് സൂപ്പ് ഐറ്റംസ് വെജിറ്റബിൾ ആണോ സാറേ വെജിറ്റബിൾ ആ ചിക്കൻറ്റേതല്ലേ മ്മ് ഓക്കെ സാറേ നാല് പേർക്കുള്ളതല്ലേ മ്മ് മ്മ് ഓക്കെ സാറേ സാറേ നമ്മള് വണ്ടി പാർക്ക് ചെയ്യുന്നതിന്റെ ഡ്രൈവർ ഉണ്ടോ അതോ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ മ്മ് ഓക്കെ ഓക്കെ സാറേ ഒരൻ മഴയാണോ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല കുഴപ്പമില്ല മ്മ് മ്മ് ആ ഹാ ഓക്കെ അത് കുഴപ്പമില്ല സാറേ അത് തീർച്ചയായിട്ടും ചെയ്തോളും നമ്മള് നമ്മള് അത് ഡെയിലി ഡെയിലി അത് നമ്മുടെ സ്റ്റാഫിനോട് നമ്മള് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് ആ ഓക്കെ സാർ അത് നമുക്ക് അറിയാം അതാണ് നമ്മള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് റേറ്റിംഗ് കുറവാണ് സാറേ ആ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് സാർ ഇത് നമ്മുടെ നമ്മുടെ ഹോട്ടലിൻ്റെ വിജയും അത് തന്നെ സാറേ നമ്മുടെ ഫുഡ് നമ്മൾ എത്ര ക്വാളിറ്റി ആയിട്ടാണ് നമ്മള് ചെയ്തു കൊടുക്കുന്നത് നമ്മള് ഇൻക്രീഡിയൻസൊന്നും അധികം ചേർക്കാറില്ല ഓ തീർച്ചയായിട്ടും സാറേ പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട് വര് നമുക്ക് ചെറിയ ചെറിയ ഓർഡറുകൾ തന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒരു നമുക്കൊരു അമ്പത് കിലോമീറ്റർ അകലത്തിലൊക്കെ വന്ന് ചെയ്യാൻ പറ്റുകയുള്ളു സാറേ നമുക്ക് അത് സൂപ്പ് മാത്രമേ ഉള്ളു സാറേ സൂപ്പ് കഴിക്കാം